സഹകരണ സ്ഥാപനങ്ങൾ ബാങ്കുമായിട്ട് കാർഷിക നമുക്ക് പിന്നെ ഒരു ലോണെടുക്കണമെങ്കിൽ കാർഷിക കാർഷകനെ ഒരു ലോണെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോണ് കിട്ടണമെങ്കില് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ആശ്രയിക്കണം കാരണം നമ്മള് വാഴക്കൃഷിയായാലും നെൽകൃഷി ആയാലും കുരുമുളകായാലും നമുക്ക് കാപ്പി കുരുമുളക് എന്ന് വയനാടിന്റെ കാര്യം പറയുക വയനാട്ടുക്കാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതല് വാഴ കാപ്പി കുരുമുളക് അടയ്ക്ക എന്നൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അത് സഹകരണ സ്ഥാപനങ്ങൾ തന്നെ ആശ്രയിക്കണം കാരണം പിന്നെ നമുക്കൊരു ലോണ് കിട്ടണമെങ്കില് സഹകരണ സ്ഥാപനത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ ലോണ് കിട്ടുകയുള്ളു അല്ലാതെ പിന്നെ വേറെ ഓടി പോയിട്ട് എനിക്കൊരു ഒരു ലക്ഷം രൂപ വേണം അല്ലേൽ ഒരു പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് കൊടുക്കാൻ ആരും തയ്യാറാവില്ല കാരണം സഹകരണ സ്ഥാപനങ്ങളെ നമ്മള് ആശ്രയിക്കുകയാണെങ്കില് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലോണ് കിട്ടും കാരണം നമ്മളുടെ പിന്നെ ആധാർ കാർഡും നമ്മളുടെ നികുതി ചീട്ടും കൊണ്ടുവെച്ചാൽ നമുക്ക് ലോണ് എത്ര വേണമെങ്കിലും അവര് ബാങ്ക്കാര് തരും അതുകൊണ്ടാണ് സഹകരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കണം എന്ന് പറയുന്നത് കാരണം സഹകരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കും കാരണം ബാങ്ക് എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ഒരു മേഖലയിൽ പോയി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണം കാരണം ബാങ്കിൽ പോയി എല്ലാം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് ലോണെടുക്കാൻ നമുക്ക്